നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വാണിജ്യത്തിലും വ്യാപാരത്തിലും ഒക്കെ നല്ലതു പോലെ മലയാള ഭാഷയാണ് ഉപയോഗിക്കപ്പെടുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് നല്ല ഉയരത്തിലെത്തുന്നത് ആ ബാക്കിയുള്ള ആൾക്കാർ ജോലിയോ ബിസിനസ്സോ ആയിട്ട് വിദേശത്ത് പോയി സെറ്റിലാകുമ്പോൾ അവർ വേറെ ലാംഗ്വേജ് ഭാഷ പഠിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നു കേരളത്തിലുള്ളവരാണ് മലയാള ഭാഷ ടച്ച് ചെയ്ത് വീണ്ടും വീണ്ടും ജീവിക്കേണ്ടി വരുന്നത് മറ്റുള്ള ഭാഷ പഠിച്ചതാണെങ്കിൽ പോലും ഇവിടെ താമസിക്കുമ്പോൾ അതുമായിട്ടുള്ളൊരു ബന്ധമില്ലാതാകുകയും മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടി വരുന്നു അതു കൊണ്ട് ഇവിടെയുള്ളവർ വാണിജ്യ കാര്യങ്ങളിലും സമ്പത്ത് കാര്യങ്ങളിലും എല്ലാം മലയാളം യൂസ് ചെയ്യുന്നു മലയാളം ഭാഷയാണ് ഏറ്റവും നല്ലത് മലയാള ഭാഷ ഉപയോഗിക്കപ്പെടുമെന്നു പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എത്ര വിലയായി എ എത്ര എന്തോരം സാധനമുണ്ട് ഏതാണ് സാധനത്തിൻ്റെ പേര് അങ്ങനെ വരുമ്പോൾ മലയാളമാണല്ലോ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഭാഷയൊന്നും ഉപയോഗത്തില്ല പിന്നെ എഴുതുന്നതാണെങ്കിലും ഓരോ ബില്ലും കാര്യങ്ങളും എല്ലാം മലയാളത്തിൽ പേര് കൊടുത്തിട്ട് അക്കത്തിൽ തുകയും കൊടുത്തു കഴിയുമ്പോൾ മലയാളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ വല്ല ഭാഷകളൊന്നും ഉപയോഗിക്കുന്നില്ല മലയാളത്തിനാണ് കൂടുതൽ പ്രാധാന്യം എല്ലാ സമയത്തും എല്ലാ സമയത്തും കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മലയാളം ഉപയോഗിച്ച് മുന്നോട്ട് പോകാനേ കഴിയൂ എല്ലാവരും മലയാളികളായതു കൊണ്ടും ബാക്കിയുള്ളവർ വേറെ ഭാഷ സംസാരിക്കാത്തതു കൊണ്ടും കൂടുതലും മലയാളമാണ് കേരളത്തിൽ ഇപ്പോഴും നില നിന്നു കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഭാഷയ്ക്ക് പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല വേറെ ഒരു ഭാഷയും ആരും സംസാരിക്കാറുമില്ല മലയാളത്തിൽ സാധനങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അന്വേഷിക്കുകയും പറയുകയും ചെയ്യുന്നതു കൊണ്ട് മലയാള ഭാഷ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വേറെ ഭാഷ ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എല്ലാവരും മലയാളം പറഞ്ഞു പറഞ്ഞ് ശീലമായി പോയതു കൊണ്ട് വേറെ ഭാഷയ്ക്ക് പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇവിടെ കിടന്ന് വേറെ ഭാഷ സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതു കൊണ്ട് എല്ലാവരും മലയാള ഭാഷയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മലയാള ഭാഷക്കാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രാധാന്യം ഉള്ളത് വേറെ ഭാഷ പിന്നെയും പിന്നെയും പുറകോട്ടാകുന്നതു കൊണ്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഭാഷകളോ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്നതല്ല വേറെ ഒരു ഭാഷക്കും പ്രാധാന്യം ഇല്ല